ഗ്രീൻ സിവിൽ പബ്ലിക് സ്കൂളിലേക്ക് സ്വാഗതം അ ഓക്കെ മാം

ഓക്കെ സാർ മാം നമുക്ക് ഡൊണേഷൻ ഇരുപത്തയ്യായിരം രൂപയാണ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ട് പേരുണ്ടല്ലേ എൽ കെ ജിയും സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കും അതില് നമ്മൾ യൂണിഫോം ഐ ഡി കാർഡ് ബുക്ക്സ് എല്ലാം ഇൻക്ലൂഡിങ് ആണ് ഫീസിൽ തന്നെ പിന്നെ ഡോനെഷൻ എക്സ്ട്രാ ആണ് ഇരുപത്തി അയ്യായിരം രൂപ ഫീസ് നമുക്ക് ഫൈവ് മന്തിലേക്ക് പതിനയ്യായിരം രൂപയാണ് വരുന്നത്

ഓക്കെ നമുക്കിപ്പം ഒരു പത്ത് സ്റ്റുഡൻറ്റിന് ഒരു മിസ് എന്ന ലെവലിൽ ആണ് നമ്മൾ പ്രോസീജിയർ നീങ്ങികൊണ്ടിരിക്കുന്നത് ക്ലാസും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കാൻ എൽ കെ ജി യിലാണ് പറയുന്നത് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനുള്ള സ്നാക്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്ത് വിടണം നമ്മൾ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് തരത്തില്ല ഇല്ല ഇല്ല എൽ കെ ജി സ്റ്റുഡൻറ്റിന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളു സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് അതെയതെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് സ്റ്റുടെൻസിന് നമുക്ക് അല്ല അത് എക്സ്ട്ര ആണ് ബസ് ഫെയർ ഒക്കെ എക്സ്ട്രാ ആണ് വരുന്നത് ഓട്ടോസാണേലും നമ്മള് മന്തിലി ഓക്കെ അപ്പോൾ തൗസൻഡ് ആണ് വരുന്നത് നമുക്ക് വൺ മന്തിലേക്ക്

ഓക്കെ അതെ അതെ

ഓക്കെ നിങ്ങളുടെ തീരുമാനം ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ രാവിലെ ഒന്നും കൂടെ ഒന്ന് വിളിക്കാം ഓക്കെ ഓക്കെ താങ്ക്യൂ